ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടമായ ഭക്ഷണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇതിൻ്റെ രുചി എന്നു പറയുന്നത് വളരെ അസാധ്യമാണ് അതിലുള്ള എരിവും പുളിയും മസാലകളും എല്ലാം ചേർത്ത് വളരെ വെറും നല്ല ഭക്ഷണ വിഭവമാണ് അത് അത് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വളരേ വ്യത്യസ്ഥമായ രീതിയിലാണ് അത് ഉണ്ടാക്കുക നമ്മള് വിചാരിക്കുന്ന പോലെയേ അല്ല അതിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക അത് എങ്ങനെ ഉണ്ടാക്കുക വച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം കടയിൽ ചെന്ന് വളരെ വൃത്തിയുള്ള ഒരു ഇളം പ്രായമായ കോഴിയെ വാങ്ങി തൂക്കി അറുത്ത് അതിനെ നേരെയാക്കിയതിന് ശേഷം ചെറിയ നമ്മൾക്ക് ആവശ്യമായ കഷണങ്ങളാക്കി മാറ്റുന്നു ആ കഷണങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടു വന്ന് വളരെയധികം വൃത്തിയായി കഴുകി അതിനെ നമ്മൾ കുറച്ച് നേരം വെയ്ക്കുന്നു അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിൽ നമ്മൾക്ക് ആവശ്യമായ മുളകുപൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികൾ മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇവയെല്ലാം ചേർത്ത് ഈ അരപ്പുകളും പൊടികളും എല്ലാം ചേർത്ത് വളരെ മയത്തിൽ നമ്മളുടെ ചിക്കനിലേക്ക് തേയ്ക്കുന്നു അതിനു ശേഷം ഈ ചിക്കൻ നമ്മൾ ഒരു പാത്രത്തിൽ വളരേയധികം മൂടി വെയ്ക്കുന്നു അതിനുശേഷം ഒരു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ ചിക്കനെയെടുത്ത് ഒന്നുകൂടി നമ്മുടെ കയില് വെച്ച് ഇളക്കി ശരിയാക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു അടുപ്പിൽ നമ്മുടെ ചട്ടി വെച്ച് തീ കത്തിച്ച് അതില് എണ്ണയൊഴിച്ച് നമ്മൾ അതിനെ ചൂടാക്കുന്നു എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേയ്ക്ക് ചിക്കൻ വെട്ടിയിട്ട നമ്മുടെ മസാല തേച്ച ചിക്കൻ അതിലേക്ക് ഇറക്കുന്നു അതിനുശേഷം അത് വേവാൻ വേണ്ടി നമ്മൾ കുറച്ചു സമയം താമസിക്കണം ആ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ വളരെയധികം സ്വാദിഷ്ടമായിട്ട് വരുന്നതാണ് ഇതിന് ശേഷം നമ്മൾ അതിന് മുകളില് കുറച്ച് ചാട്ട് മസാലയും തൂകി കഴിഞ്ഞാൽ വളരേ സ്വാദിഷ്ടമായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാണ്